ഇടുക്കി ജില്ലയിലെ ആളുകൾ ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു സമൂ സമൂഹമാണ് അവർ കാർഷിക മേഖലയിലാണെങ്കിലും അതു പോലെ മന വന്യ ജീവികളുടെ ആക്രമണങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവർ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് അടുത്തു തന്നെ കാർഷിക മേഖലയെ ആശ്രയിച്ചും അതു പോലെ തോട്ടം മേഖലകളിലും മറ്റ് സർക്കാരിൻ്റെ തൊഴിലുറപ്പ് അങ്ങനെയുള്ള ജോലികളിലൊക്കെ കഴിയുന്ന മനുഷ്യരാണ് അവരുടെയൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട് കാരണം മാറി മാര് മാറി വരുന്ന സർക്കാരുകൾ കർഷകരെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ പരിഗണിക്കുന്നില്ലയെന്നുള്ള പരാതി പണ്ട് മുതലേ ഉള്ളതാണ് അവരുടെ നിത്യ ചിലവിനു പോലും സാധിക്കാത്ത സാധിക്കാത്ത വിധത്തിലിപ്പോൾ അമിതമായിട്ടുള്ളത് ജീവിത ചിലവുകൾ നിത്യ ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പം ഈ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളിയെന്നു പറയുന്നത് അവനിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടു പൊകുന്നുള്ളതാണ് അതായത് ആ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതു പോലെ ജീവിത ചിലവുകളമിതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അതു പോലെ ഓരോ സാധനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ബലം നമ്മളുണ്ടാക്കുന്ന നാണ്യവിളകൾക്ക് നേരിടുന്ന വിലത്തകർച്ച അതു പോലെ കൃഷി കാർഷിക മേഖലയിലാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം അതുപോലെ ന്ന കുരങ്ങ് പിന്നെ ഒരു കപ്പ ഇട്ടു കഴിഞ്ഞാൽ പോലും മുള്ളം പന്നി പിന്നെ എലി അങ്ങനെയുള്ള ഇവരുടെ ശല്യം കാരണം കർഷകർ കൃഷിയിൽ നിന്ന് പരിപൂർണ്ണമായിട്ടൊഴിയാനായിട്ട് നിർബന്ധിതരാകുകയാണ് അതിന് അവരുടെ ജീവിതം വളരെ വെല്ലു വിളി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കേണ്ട ആൾക്കാർ അവരെ തിരിഞ്ഞ് നോക്കുന്നതേയില്ല പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും കർഷകരെ കർഷകർക്ക് ലഭിക്കുന്നില്ല അതിൽ അവർ വളരെയധികം വേദനിക്കുന്നുണ്ടോരോ മാറി മാറി വരുന്ന ആൾക്കാരിൽ ഇവർ അമിത് പ്രതീക്ഷയോടെ കണ്ണ് നട്ടിരിക്കുമ്പോൾ അവർ വ്യവസായ മേഖലയിലുള്ളവരെയും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നാൾക്കാരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് കണ്ട് വരുന്നത് പിന്നെ കാർഷിക മേഖലയിലാണെങ്കിൽ പണിക്കാരുടെ അതായത് പണിയെടുക്കാനുള്ള ആൾക്കാരുടെ ദൗർലഭ്യം പിന്നെ അതിനായിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നു വരുന്ന ആൾക്കാരുടെ ഒരു അവരുടെ ഒരു പണിക്കാരുള്ളതു കൊണ്ട് മാത്രമാണ് കാർഷിക മേഖല ഒരു വിധത്തിലെങ്കിലും പിടിച്ചു നിർത്തി കൊണ്ടു പോകാൻ പറ്റുന്നത് അമിതമായ തൊഴിലിൻ്റെ തൊഴിൽ കൂലി വേദനം വർദ്ധിപ്പിച്ചു നമ്മുടെ നാട്ടിലുള്ളവർ അമിതമായിട്ടുള്ളത് കൂലിയാണ് ഈടാക്കാൻ ഈടാക്കുന്നത് കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ഒരു മനുഷ്യനെയും വിളിച്ചാൽ കിട്ടാത്തയവസ്ഥയായി തന്നെ അതുപോലെ തന്നെ അവർക്ക് ആത്മാർത്ഥമില്ലാത്ത പണി പിന്നെ ബഫർ സോണാണ് ആ പിന്നെ പാറ പൊട്ടിക്കാൻ പാടില്ല അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കിടെ ബുദ്ധിമുട്ടുകൾ അതു വേറെ പിന്നെ ഇപ്പം കസ്തൂരി രംഗൻ പോലെയുള്ള വിഷയങ്ങളിൽ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധി മുട്ടുണ്ട് അവർക്ക് ഒരു കെട്ടിടം പണിയുവാനോ അല്ലെങ്കിൽ കൂടുതൽ ചില ഭാഗങ്ങളിൽ സ്ഥലം മേടച്ചു കഴിഞ്ഞാൽ അത് പട്ടയം വെച്ച് നമുക്ക് ലോണെടുക്കാനോ അല്ലേ അങ്ങനത്തേതായ ആവശ്യങ്ങൾക്കു വേണ്ടിയിട്ടൊന്നും നമ്മളുടെ സ്ഥലം പ്രയോജനപ്പെടാത്ത സാഹചര്യമുണ്ട് അതു പോലെ ഹൈ റേഞ്ച് മേഖലയിലേക്കാണെങ്കിൽ ആൾക്കാർ ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് കു കുട്ടികളാണെങ്കിലും മറ്റുള്ളവരെല്ലാം ഈ ഒരു സ്ഥിതി കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നു ടൗണുകളിൽ പോകുന്നു പിന്നെ കാർഷിക മേഖലയിപ്പോൾ പുതിയ തലമുറക്കൊട്ടും താൽപര്യമില്ലവർക്ക് പണിയെടുക്കണമെന്ന് പിന്നെ നേതാക്കളെന്നു പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു വിജയത്തിനു വേണ്ടിയിട്ട് അവർ വന്നു ചിരിച്ചു കാണിച്ച് ഓട്ട് മേടിച്ച് പോകുന്നതല്ലാതെ പിന്നീടവരഞ്ച് വർഷം കഴിഞ്ഞ് വരുന്നെന്നല്ലാതെ വേറെ യാതോരു സഹായം ആ നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എല്ലാ വെല്ലുവിളികളിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ കടന്നു പോകുന്നത് സാമ്പത്തിക വെല്ലു വിളി അതുപോലെ അനുദിനം സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധന പിന്നെ വന്യമൃഗ ജീവികളുടെ ശല്യം പിന്നെ നിത്യ ചിലവ് വർദ്ധിച്ചതും പിന്നെ അതു പോലെ പണിക്കാരുടേതൊക്കെ കൂലി വർദ്ധിച്ച പിന്നെ വളം അങ്ങനെയുള്ള സാധനങ്ങളുടെ വില കൂടുതൽ പിന്നെ അമിതമായ കീടനാശിനി പ്രയോഗം മൂലം മണ്ണ് മലിനമായിക്കൊണ്ടിരിക്കുന്നു ജലം മലിനമായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ നേരിടാനോ ഇതിനൊരു ചെറിയ കൈത്താങ്ങോ വരാനോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിലിടുക്കിയിൽ ഞങ്ങൾ ഇനി ആരിലൊരു പ്രതീക്ഷ വെക്കെണ്ടതെന്നു പോലും ഞങ്ങൾക്കറിയത്തില്ല കാരണം ഓ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നില്ല അവരുടെ നിന്നൊരു പ്രതീക്ഷ ഒന്നും നമ്മൾക്കിപ്പം പ്രതീക്ഷിക്കാൻ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതു പോലെ എല്ലാ തരത്തിലും ഇടുക്കിയിലെ കർഷകർ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാൻ പാട് പെടുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് അമിതമായിട്ടുള്ള ശമ്പളവും അവർക്ക് അതിൻ്റെ ഒരു ശതം ഒരു നല്ലൊരു ശതമാനം പെൻഷനായിട്ടും കൊടുക്കുന്ന സർക്കാർ അവരെ തീറ്റി പോറ്റുന്ന കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തയൊരു നിലപാട് വളരെയധികം പ്രതി പ്രതിഷേധാർഹമാണ് കർഷകർ പൊട്ടന്മാരല്ല അവർ വിവരമില്ലാത്തവരല്ല അവർക്കെല്ലാം അറിയാം അവർ നിശബ്ദരായിട്ടിരിക്കുന്ന അവർക്ക് പ്രതികരിക്കാൻ ഒരു സംഘടനാ ബലമോ അവർക്ക് അങ്ങനെ സംഘടിക്കാനുള്ള സമയമല്ലാത്തതെന്നാൽ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമുള്ളൂ ഇടുക്കിയിൽ എന്തെങ്കിലൊരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതിന് അങ്ങനെയുള്ള ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നു